ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാല് പണ്ടുകാലത്ത് വെച്ച് നോക്കുമ്പോള് പണ്ട് പണ്ടുള്ള മനുഷ്യർക്ക് വിദ്യാഭ്യാസമോ അത് പഠിക്കുവാനോ എഴുതുവാനോ അവർക്ക് പുറത്ത് പോലും ഇറങ്ങാനുള്ള ഇത് പറ്റില്ലായിരുന്നു അവർക്ക് പഠിക്കാൻ അനുവാദമില്ലായിരുന്നു വീട്ടുജോലികളും അല്ലെങ്കില് അവരുടേതായ ജോലികൾ അത് വരുമാനത്തിനുള്ള ജോലികള് ചെയ്യുകയെയുണ്ടായിരുന്നുള്ളൂ ഇപ്പോള് അങ്ങനെയല്ല വിദ്യാഭ്യാസം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം വളരെയധികം എല്ലാവരും തന്നെ പഠിക്കണം എല്ലാവരും തന്നെ പഠിക്കണം അതിനുള്ള സംവിധാനങ്ങള് ഒരുപാട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വിദ്യാഭ്യാസം വേണമെന്നുവരെ നമുക്ക് തീരുമാനിക്കാം അതിനുള്ള നിരവധി വഴികൾ നമ്മുടെ മുന്നില്ത്തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നാലും സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റേറ്റ് ഇങ്ങനെ പല രീതികളിലായിട്ട് കോളേജ് അങ്ങനെ പല രീതികളായിട്ട് സ്കൂളുകളായിട്ടും കോളേജുകളായിട്ടും എല്ലാം ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ അംഗവൈകല്യമുള്ളവരും എന്താണ് ബുദ്ധിമാന്ദ്യമുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് സെപ്പറേറ്റ് സ്കൂളുകള് വരെ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ അവരുടെയും ജീവിതം അവരുടെ അവരുടെ വിദ്യാഭ്യാസം സുരക്ഷിതമാക്കാൻ അങ്ങനെയുള്ള സ്കൂളുകൾ ഒരുപാടുണ്ട് ചിലയിടത്തുതന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇടവും അധികം പണവും ഒന്നുമില്ലാതെ തന്നെ വിദ്യാഭ്യാസം നേടി നമുക്കിറങ്ങാം ചിലയിടത്ത് പണം കൂട്ടി മേടിച്ച് വിദ്യാഭ്യാസം വേണ്ട എന്ന തരത്തില് അങ്ങനെ നില്ക്കുന്ന കുറെയധികം ആളുകളുമുണ്ട് അങ്ങനെ ഒരുപാടാളുകളും ഒന്ന് പിന്നെ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയാണെന്ന് ചോദിച്ചാല് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാമുണ്ട് എന്നാലും അതെല്ലാം പരിഗണിച്ച് അതെല്ലാം പരിഗണിച്ച് അവർക്കൊരു വിദ്യാഭ്യാസം നൽകുകയാണ് നമ്മളോരോരുത്തരും ചെയ്യുന്നത് അവർക്ക് വായിക്കുവാനും എഴുതുവാനും ഒന്നും അറിയില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ അതെല്ലാം പറഞ്ഞുകൊടുത്ത് ആ വിദ്യാഭ്യാസമൊക്കെ പറഞ്ഞുകൊടുത്ത് നല്ലതുപോലെ ഒരു നല്ലയൊരു വിദ്യാർത്ഥിയാക്കാനും ശ്രമിക്കുന്നതിനൊപ്പം പലയിടങ്ങളിലായിട്ട് ഇപ്പോള് പലയിടങ്ങളിലായിട്ട് പല സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട് ഒന്നും രണ്ടുമൊന്നുമല്ല ഈ ബുദ്ധിമാന്ദ്യമുള്ളവര് ഭിന്നശേഷിയുള്ളവർക്കും അങ്ങനെയായിട്ടുള്ളവരൊക്കെ എല്ലാവർക്കും തന്നെ ഒരുപാട് വിദ്യാഭ്യാസം കൊടുക്കുകയും നൽകുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് സ്കൂളുകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അവർക്ക് വേണ്ടി ഒന്നുരണ്ട് ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ട് അവർക്കുവേണ്ടി തന്നെ ഒരുപാട് തന്നെ തുടങ്ങിയിട്ടുണ്ട്